സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നൃത്തപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് തിരുവാതിര കളിച്ചിട്ടുണ്ട് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കൂട്ടുകാരുമെല്ലാം ചേർന്ന് ഗ്രൂപ്പ് ആയിട്ട് ഡാൻസ് കളിക്കുന്നതും ഓരോരോ ഡാൻസ് കളിക്കുമ്പോൾ ഓരോരോ തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോളും അതൊക്കെ ചൂണ്ടിക്കാട്ടി തിരുത്തി തരുന്നതും വഴക്ക് പറയുന്നതും തെറ്റി പോവുമ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വഴക്ക് പറയും അടിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് വിഷമം ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു പഠിച്ച് നല്ല കളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ പ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ ഉള്ള നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് നല്ല രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ആത്മാഭിമാനവും അതിലേറെ സന്തോഷവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്